മത്സ്യബന്ധനം മെച്ചപ്പെട്ടതും പിന്നെ എളുപ്പം ഉള്ളതുമായ ഒരു തൊഴിലാക്കി മാറ്റാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ എല്ലാം കൊടുത്താലേ പറ്റുളളൂ അവരുടെ വള്ളം അല്ലെങ്കിൽ ബോട്ട് ഓടാൻ മണ്ണണ്ണ പെർമിറ്റ് പോലും അവർക്ക് പണം മേടിക്കാതെ കൊടുക്കണംന്നുള്ള അഭിപ്രായക്കാരനാണ് ഇപ്പം മേടിക്കുന്നുണ്ടോന്നും അറിയാൻ മേല അവർക്ക് അതിനുള്ള പെർമിറ്റുണ്ട് ആ പെർമിറ്റ് മുഴുവൻ സാധ്യമായ രീതിയിൽ സർക്കാരിൽ നിന്ന് കൊടുക്കണം വള്ളവും വലയും ബോട്ട് വാങ്ങിക്കാനും ഒക്കെ സബ്സിഡി രീതിയിൽ അവർക്ക് എഴുതി അങ്ങ് കൊടുത്താലേ നമ്മുടെ മത്സ്യബന്ധന രംഗത്ത് കടലിൽ നിന്ന് കിട്ടുന്ന സ്വത്ത് കടലിൽ നിന്ന് കടൽ തരുന്ന ആ സ്വത്ത് നമുക്ക് മത്സ്യബന്ധനം വഴി നമ്മുടെ കരയിലെത്തിച്ച് നമ്മുടെ വിപണന കേന്ദ്രം വഴി അനേകായിരം പേർക്ക് തൊഴിൽ കിട്ടാനും അതുപോലെ തന്നെ നമുക്ക് പിന്നെ പ്രയോഗികമായിട്ട് നമ്മുടെ ആരോഗ്യ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് മെയിൻ ഭ ഭക്ഷണം ഒരു പ്രധാന ഘടകമാണ് മറ്റു രോഗങ്ങൾ ഇല്ലാതെ വരുന്നതിനും മെയിൻ ഭക്ഷണം വളരെ മെച്ചപ്പെട്ടതും വളരെ നല്ലതുമാണ് അതുകൊണ്ട് മത്സ്യബന്ധനം എന്ന് പറയുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് വേണ്ട നടപടി അപകടങ്ങളിലും ആപത്തുകളിലും സജീവമായി അവരെ രക്ഷിക്കുക അതിന് കോസ്റ്റ് ഗാർഡ് പോലുള്ളവരെ കൂടുതൽ സജ്ജീവമാക്കി നിർത്തുക പ്രഖ പിന്നെ പ്രലോപനങ്ങളും തിരമാലകൾ ഉയർത്തലും ശക്തമായ കാലാവസ്ഥ പ്രതികൂലവും ഉണ്ടാകുന്ന സമയത്ത് അതിന് തക്ക കോസ്റ്റ് ഗാർഡുകളെയും അതിന് തക്ക സേനയേയും വിനിയോഗിച്ച് അവരുടെ ജീവൻ രക്ഷിക്കാൻ നോക്കുക ഇതെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പിന്നെ തീർച്ചയായും കൊടുക്കേണ്ട കാര്യങ്ങളാണ് അതും കൂടാതെ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടത് ഇവർക്ക് മെച്ചപ്പെട്ട പിന്നെ താമസ സൗകര്യം മെച്ചപ്പെട്ട പിന്നെ ഭക്ഷണങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസങ്ങൾ ഇതെല്ലാം കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയു ണ്ട്